രോഗം തടയാൻ വേണ്ടിയിട്ടും എൻ്റെ ആരോഗ്യം നില നിർത്താൻ വേണ്ടിയിട്ടും ഞാൻ ചില പൊടിക്കൈകളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ആദ്യം രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നടക്കാൻ പോവും പിന്നെ അത് കഴിഞ്ഞ് അല്ലെങ്കിൽ എക്സർസൈസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം കുടിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇഞ്ചി നീര് കുറച്ച് ഇഞ്ചി നീര് കഴിക്കും അപ്പോൾ അത് ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ നന്നായിട്ട് രാവിലത്തെ ഭക്ഷണം കഴിക്കും അതിൽ അധികം ഞാൻ പയർ വർഗ്ഗങ്ങളാണ് ഉപയോഗിക്കാറുള്ളത് അതായത് കടല പിന്നെ ചെറുപയർ മമ്പയർ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്താറുള്ളത് പിന്നെ കഴിയുന്നതും ഞാൻ പച്ചക്കറിയാണ് ഉപയോഗിക്കൽ പിന്നെ പിന്നെ ഒരു മുട്ട കഴിക്കും അതിന് സാധാരണ വൈകുന്നേരമാ ഞാൻ മുട്ട കഴിക്കാറുള്ളത് പിന്നെ ഉള്ളത് ഇപ്പോൾ ഈ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾകൊക്കെ അത് ലിവറ് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് കഴിക്കുന്നത് വൈകുന്നേരം നാല് മണിൻ്റെയും അയ് മൂന്ന് മണിൻ്റെ മൂന്ന് മണിയുടെയും അതുപോലെ തന്നെ ആറ് മണിൻ്റെ ഇടയിലും ക്യാരറ്റ് ഒന്ന് അതുപോലെ തന്നെ ബീറ്ററൂട്ട് ഒന്നെടുത്തിട്ട് മിക്സിയിലിട്ട് മിക്സിയിലിട്ട് ആ അരച്ചെടുത്ത് അതിൽ ഉപ്പും ചെറുനാരങ്ങ നീര് ചെറുനാരങ്ങ നീരും ഒഴിച്ചിട്ട് ജ്യൂസാക്കിയിട്ട് കുടിക്കാറുണ്ട് അതും എനിക്ക് അത് നമ്മൾ കരൾ വളരെ വൃത്തിയാവാനും പിന്നെ നല്ല ശോദനം കിട്ടാനും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഹെൽത്ത് ഒന്ന് നമ്മളെ ആരോഗ്യം മെച്ചപ്പെടാനും ഉപയോഗിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ കക്കിരിക്ക ജ്യൂസ് കുടിക്കാറുണ്ട് പിന്നെ രാത്രിയിൽ ഭക്ഷണം കഴിക്കാറില്ല അപ്പോൾ അതിന് പകരം ഈ മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ സാലഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിക്കാറുള്ളത് അപ്പോൾ എൻ്റെ ആരോഗ്യം നില നിർത്താൻ ഞാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ ഇതൊക്കെയാണ്